ഇന്ത്യയിൽ പൊതുവെ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് ലഭിക്കാറ്

മഴക്കാലത്ത് മഴയും അതേപോലെ തന്നെ കൊടും ശൈത്യ കാലത്ത് കൊടും ശൈത്യവും ആ ഒരു രീതിയിലല്ല ഒരു മിതോഷ്ണമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഇന്ത്യയില് പൊതുവെ ലഭിക്കാറുള്ളത് മഴക്കാലത്താണെങ്കിലും അതേപോലെ ശൈത്യ കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും എല്ലാം ഒരു മിതമായിട്ടുള്ള രീതിയിലുള്ള കാലാവസ്ഥ മനുഷ്യന്മാർക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അത് മാത്രല്ല ഇപ്പം ഒരു അതി കഠിനമായിട്ടുള്ള ചൂടോ അല്ലെങ്കിൽ അതികഠിനമായിട്ടുള്ള മഴയോ അല്ലെങ്കിൽ ശൈത്യമോ വന്നിട്ടുണ്ടെങ്കില് അത് മനുഷ്യ രാശിയുടെ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമായി മാറും പക്ഷെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ അധികമായിട്ടുള്ള ആ ഒരു കാലാവസ്ഥ നേരിടാത്തത് കൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിനും അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ നിലനിൽപ്പിനും അവരുടെ കൃഷി ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളില് ഇപ്പം മഴക്കാലത്താണെങ്കിൽ നല്ല മഴ പെയ്ത് പ്രളയം അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരുടെ ജീവിതത്തെ ഒരു ഒരു രീതിക്ക് ബാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം കടുത്ത വേനലില് ചില പ്രദേശങ്ങളിലെ നിലം എല്ലാം വരണ്ട് ഉണങ്ങുന്നതും അതേപോലെ അവർക്ക് വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലൊക്കെ ഒക്കെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അത് അവരുടെ കൃഷിയെയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെയും അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെയെല്ലാം ബാധിക്കുന്നതായിട്ട് കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രല്ല ഇതുപോലുള്ള സാഹചര്യങ്ങള് വരുന്ന സമയത്ത് ജനങ്ങള് കൂടുതല് ഫ്രസ്ട്രേറ്റഡ് ആകാനും അല്ലെങ്കിൽ അവര് പ്രശ്നങ്ങളിലേക്ക് പോകാനും ആ പ്രശ്നങ്ങളിൽ നിന്ന് അവരൊന്ന് കരകയറി വരാനൊക്കെ ഒരുപാട് ടൈമ് എടുക്കുന്നുണ്ട് സൊ ഒവറോൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കാലാവസ്ഥ എല്ലാവർക്കും എന്താ പറയുക മാനേജ് ചെയ്തത് കൊണ്ടുപോകാൻ കഴിയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ്